ഞാനീ അടുത്തകാലത്ത് വാങ്ങിച്ചൊരു സാധനമാണ് ഫാന് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് ഫാനില്ലാതെ നമുക്ക് ഒരു നിമിഷംപോലും ഇരിക്കാൻ പറ്റില്ല രാവിലെ രാവിലെയാണെങ്കിലും രാത്രിയാണെങ്കിലും നമുക്കൊരു ഒരു ഒരു നിമിഷ നേരം നമുക്ക് ഫാനില്ലാതെ ഇരിക്കാൻ പറ്റില്ല കാരണം അത്രയും അന്തരീക്ഷത്തില് നമ്മള് ചൂട് നിൽക്കുന്നുണ്ട് നമുക്ക് ഫാനില്ലാതെ പറ്റില്ല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഫാന് നല്ല കാറ്റുണ്ട് നല്ല റിലാക്സേഷനുണ്ട് പുറത്തുപോയിക്കഴിഞ്ഞാൽ കേറി വരുന്നത് തന്നെ ഈ ഫാന് ഫാനിൻ്റെ ചുവട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽത്തന്നെ നമുക്കൊരു സമാധാനാണ് എനിക്ക് വളരേയധികം ഇഷ്ടപ്പെട്ടു നല്ല പ്രൊഡക്റ്റാണിത് നല്ല കാറ്റുണ്ട് രാത്രിയാണേലും ചൂടാ ചൂടാണ് അതുകൊണ്ട് നമുക്ക് ഫാനില്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ഫാനുള്ളതുകൊണ്ടാണ് നമ്മള് സുഖമായിട്ട് ഉറങ്ങുന്നത് ഫാന് വളരെ വളരേയധികം ഇഷ്ടപ്പെട്ടു എനിക്കിത്